ഹലോ ആ ആരായിരുന്നു ആ പറയൂ അതെ അതെ അതെ ആ ഓക്കെ ഓക്കെ എന്ത് മാഡത്തിന് എന്തായിരുന്നു വേണ്ടത് ആ

നമുക്ക് ഈ ടീയുടെ പ്രൊഡക്ടിൻ്റെ നമ്മുടെ ക്വാളിറ്റി വര് വരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് അങ്ങനെ മൂന്ന് ക്വാളിറ്റി ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു മേഡത്തിൻ്റെ ഷോപ്പ് എവിടെയാണ് വരുന്നത് കണ്ണൂർ സിറ്റിയിലാണൊ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഗ്രേഡ് വരുന്നത് പ്രീമിയം കസ്റ്റമേർസിന് കൊടുക്കാനുള്ള ആ പൗഡർ പൗ ടീ പൗഡറാണ് വരുന്നത് പിന്നെ ഈ തേർഡ് ഗ്രേഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ചായക്കടകളിൽ ലോക്കൽ ചായക്കടകളിലും കാര്യങ്ങളിലും ഒക്കെ കൊടുക്കുന്നത് തേർഡ് ഗ്രേഡാണ് കാരണം അതിന് എമൗണ്ട് വ്യത്യാസമുണ്ട് ചായക്കടകളിൽ പ്രീമിയം പൊടികൾ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് മുതലിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത്തരത്തിൽ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രീമിയം ഗ്രേഡിനു വരുന്നത് കിലോന് നാന്നൂറ്റമ്പത് ടു അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഡെലിവെറി നമുക്ക് എല്ലായിടത്തേക്കും കയ് ഇപ്പം നമുക്ക് നിങ്ങൾ കണ്ണൂരെന്നല്ലേ പറഞ്ഞത് കാസർഗോഡ് ജില്ലയിലേക്ക് നമുക്ക് സർവീസുണ്ട് ഓൾറെഡി കുറച്ച് ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ വണ്ടി ആഴ്ചയിലൊരിക്കൽ അങ്ങോട്ട് പോവുന്നതാണ് അപ്പം നിങ്ങളുടെ ഏരിയ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ദിവസം അങ്ങോട്ട് ഇറക്കാൻ പറ്റും പോവുന്ന വഴിയ്ക്ക് അതെ ഇല്ല ഇല്ല ഇല്ല അതെല്ലാം ഇൻക്ലൂഡഡാണ് ഇതിലിൻക്ലൂഡഡാണ് അല്ല പേമെൻറ്റ് നമ്മളങ്ങനെ ആദ്യം അഡ്വാൻസ് അടക്കേണ്ടി വരും പിന്നെ നെക്സ്റ്റ് വീക്ക് ഒരു വീക്ക് ഒരു വീക്ക് നമ്മൾ സാവകാശം തരും നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നമുക്ക് തിരിച്ച് അടക്കേണ്ടി വരും അതെ അതെ ഈ ഹോട്ടലുകളിലേക്കൊക്കെ തേർഡ് ഗ്രേഡാണ് നല്ലത് സാധാരണ ഹോട്ടലുകളിലേക്ക് നമ്മൾ വലിയ ഹോട്ടലുകളിലേക്ക് അവർ പ്രീമിയം ക്വാളിറ്റിത്തന്നെ കൊണ്ടുപോവാറുണ്ട് സാധാരണ ഹോട്ടലുകളിലേക്ക് എടുക്കാറുള്ളത് ജനങ്ങൾ പൊതുവേ എടുക്കാറുള്ളത് തേർഡ് ക്വാളിറ്റിയാണ് അതിനകത്ത് അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ടു ഹൺട്രഡ് ടു ടു ഫിഫ്റ്റിയാണ് കിലോന് വരുന്നത് അതെ അതെ അതും അവൈലബിലാണ് പക്ഷെ അത് അധികം ആൾ എടുക്കാ ആൾക്കാർ എടുക്കാറില്ല കൂടുതലും വീടുകളിലേക്കൊക്കെ എടുക്കുന്നത് ആ ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് പിന്നെ അത് ചോദിച്ചു വരുന്നവരുണ്ട് അപ്പോൾ മാഡം അത് കുറച്ച് അത് കുറച്ച് എടുത്ത് വെച്ചാൽ മതി അതിൻ്റെ മൂവ്മെൻ്റ് നോക്കിയിട്ട് കൂടുതൽ നമുക്ക് എടുക്കാം കാരണം ഓരോ ആഴ്ചയും ഞങ്ങളവിടെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഒരാഴ്ച മൂവ്മെൻ്റ് നോക്കിയിട്ട് അത് എടുത്താൽ മതി ഓ ഉണ്ട് ഉണ്ട് മസാല ടീ ഉണ്ട് ഏലം ടീ ഉണ്ട് ഗ്രാമ്പൂ ടീ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ചോക്ലേറ്റ് ടീ ഉണ്ട് അത്തരത്തിലുള്ള പല തരത്തിലുള്ള ചായപ്പൊടികളുണ്ട് അത് നമുക്ക് അവൈല അത് നമ്മൾ പ ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ മാത്രമേ അത് എടുക്കാറുള്ളൂ ബാക്കി അല്ലാതെ നമ്മളെല്ലാ ആഴ്ചയും പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ മറ്റുള്ള പൊടികളുണ്ടാവും ഇത് നമ്മൾ സ്പെഷ്യൽ ഓർഡർ തരികയാണെങ്കിൽ മാത്രമേ അത് എടുക്കാറുള്ളൂ കാരണം അത് അധികം അങ്ങോട്ട് മൂവ്മെൻ്റ് ഇല്ലാത്ത ഐറ്റമാണ് ഓ വേണ്ട ഈ നമ്പർ ഈ ഈ ഈ നമ്പറിൽ വിളിച്ചോളൂ നിങ്ങൾക്ക് സാമ്പിൾ ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നിങ്ങളുടെ കടയിലേക്ക് എത്തിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ നമ്മുടെയടുത്തുനിന്ന് ഓർഡറ് തന്നാൽ മതി ഓക്കെ താങ്ക് യൂ മേഡം